അതേ ഉണ്ട് ഞങ്ങളുടെ അടുത്തായി ഒരു ലൈബ്രറിയുണ്ട് അവിടെ പല തരത്തിലുള്ള പുസ്തകങ്ങള് വായിക്കാന് ലഭിക്കുന്നതാണ് അതുപോലെ ദിനപത്രങ്ങളും അവിടെ ലഭ്യമാണ് പണ്ട് കാലത്ത് ലൈബ്രികളില് പോയായിരുന്നു നമ്മള് പുസ്തകങ്ങള് എടുക്കുന്നതും വായിക്കുന്നതുമെല്ലാം ആ പുസ്തകങ്ങള് ഏത് രീതീലുള്ളതായിരിക്കണമെന്നും എന്ന ഒരുപാടറിവുകള് നമ്മളിലേക്ക് എത്തിക്കുന്നതുമായിരുന്നു ഇന്നത്തെ സമൂഹം വളര്ന്നു കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിക്സിൻന്റെ ഉപയോഗം നമ്മുടെ സമൂഹത്തില് കൂടി വരികയാണ് അപ്പോള് ഈ ബുക്ക് പോലെയുള്ള സാഹചര്യങ്ങള് നമുക്ക് ലഭ്യമാണ് ഈ ബുക്കെന്നത് ഓണ്ലൈനായി നമുക്ക് ബുക്കുകള് വാങ്ങി വാങ്ങിക്കാനും വായിക്കാനും പറ്റുന്നതാണ് ഇന്ന് നമ്മുടെ ഗൂഗിള് പോലെയുള്ള പല സമൂഹമാധ്യമങ്ങളിലൂടെ നമുക്ക് പലതരത്തിലുള്ള ബുക്ക്കള് വായിക്കാന് ലഭിക്കുന്നതുമാണ് അതിലൂടെ വായിച്ച് നമ്മുടെ അറിവ് നാം എപ്പോഴും പകര്ന്നെടുക്കാന് ശ്രമിക്കുക ബുക്ക്കള് വായിക്കുന്നതിൽ ഒരുപാട് അറിവുകള് നമുക്ക് ലഭിക്കുന്നു പത്രങ്ങള് ഒട്ടേറെ വാര്ത്തകള് നമ്മളിലെക്കെത്തുന്നു ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്നലെ നടന്നത് ഇന്നും ഇന്ന് നടക്കുന്നത് നാളെയുമായുള്ള പത്രങ്ങളില് നമ്മുടെ മുൻപിലെക്കെത്തുന്നു കുറഞ്ഞ ചിലവില് ഏതാളുകള്ക്കും വാങ്ങിച്ച് വായിക്കാന് പറ്റുന്ന തുക മാത്രമാണ് ഓരോ പത്രങ്ങള്ക്കും ഈടാക്കി കൊണ്ടിരിക്കുന്നത് വാര്ത്തകളിന്ന് നമ്മുടെ സമൂഹത്തില് വളര്ന്ന് പടരാണ് കഴിഞ്ഞെടേല് വയനാട്ടില് നടന്ന ദുരന്തത്തെ നാം എല്ലാവരും കണ്ടതും നമുക്കെല്ലാവര്ക്കും കൂടുതല് നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ചതും പത്രങ്ങളിലെ വാര്ത്തകളിലൂടെയാണ് പലര്ക്കും ജീവിതങ്ങള് നഷ്ടപ്പെട്ടു ആതോരോ നമ്മള് അറിയാന് കാരണം പത്രങ്ങള് തന്നെയാണ് പത്രങ്ങളില് പലവിധ വാര്ത്തകള് ലഭിക്കും അതിനെ മോശമായ രീതിയില് ആക്കി വാര്ത്തകളാക്കുന്ന പത്രങ്ങളും നമുക്ക് ലഭ്യമാണ് ഏതാണ് നല്ലതെന്ന് നാം തിരഞ്ഞെടുക്കാന് ശ്രമിക്കുക ഒരാള്ക്ക് കിടക്കാന് പാര്പ്പിടമില്ല അവരെ സഹായിക്കുക എന്നുള്ള വാര്ത്ത കാണുമ്പോള് ഈ ലോകമെമ്പാടുമുള്ള ആളുകൾ സഹായിക്കാന് വിശാല മനസായി ഇരിക്കുന്നവര് അതിലേക്ക് മുന്നോട്ട് കടന്ന് വരുകയാണ് പലര്ടേം പ്രശ്നങ്ങള് പലരും അറിയാറില്ല അതെല്ലാം അറിഞ്ഞ് മുന്നോട്ട് പോകുവാന് ഈ പത്രങ്ങള് നമ്മെ സഹായിക്കുന്നു നമ്മളറിയാത്ത പല കാര്യങ്ങളും പത്രങ്ങളിലൂടെ നമുക്ക് ലഭിയ്ക്കേം ചെയ്യുന്നു എന്താണ് പത്രം നമ്മള് സമൂഹത്തില് നടക്കുന്ന പല പ്രശ്നങ്ങള് നമ്മളിലേക്കെത്തിക്കാന് ഈ പത്രങ്ങള്ക്ക് സഹായകരമാണ് എന്താണെന്നും ഏതാണെന്നും മനസിലാക്കുക നാം പലര്ടേം പ്രശ്നങ്ങള് അറിയാറില്ല ആ പ്രശ്നങ്ങളെ എങ്ങനെ അറിഞ്ഞ് എങ്ങനെ മനസിലാക്കുക എങ്ങനെയതിനെ ചിന്തിക്കുക എങ്ങനെയവരെ സഹായിക്കുക എന്ന് പത്രമാധ്യങ്ങള് നമക്കേത്തുന്നു എന്താണ് അവരില് ഉള്ക്കൊണ്ടുകാരിക്ക്ന്നതെന്ന് നമ്മളിലേക്കെത്തുന്നു അതുപോലെ പത്രവായന നം പ്രതിയുള്ള പത്രവായനകള് നമ്മളിലേക്ക് കൂടുതല് അറിവിനെ ലഭിക്കുന്നു നാം അറിയാതെ പല കാര്യങ്ങളും പത്രം എന്ന മാധ്യമത്തിലൂടെ നമുക്ക് ലഭ്യമാണ് അതിനെ പല രീതിയില് എടുക്കേണ്ടതും നാം ഓരോരുത്തരും തന്നെയാണ് എന്താണ് പത്രങ്ങള് പലര്ടേം പ്രശ്നങ്ങള് പല രീതിയില് അവര് ആഗ്രഹിക്കുന്ന രീതിയില് നമ്മളിലേക്കെത്തുന്നു എന്താണെന്നും ഏതാണെന്നും മനസ്സിലാക്കുക എന്താണ് നല്ല വാര്ത്തകള് നല്ല വാർത്തകളും നല്ല രീതിയിലുള്ള ന്യൂസ്സ്കള് മാത്രം നമ്മളിലേക്കെത്തുന്ന ഒരുപാട് പത്രങ്ങള് നമ്മുടെ സമൂഹത്തില് ലഭ്യമാണ് അതെല്ലാം വായിക്കാന് ശ്രമിക്കുക അതുപോലെ അടുത്തുള്ള ലൈബ്രികളിലുണ്ടെങ്കില് അവിടെ വരുന്ന പുസ്തകങ്ങള് വായിക്കാന് ശ്രമിക്കുക പത്രങ്ങള്കളെ ആകൃഷ്ടരായി പല പ്രശ്നങ്ങളിലേക്കും മുന്നോട്ട് വരുന്നവരുമുണ്ട് അതെല്ലാവരും നാം മനസിലാക്കുക നമുക്ക് എന്താണ് ലഭിക്കുക എന്താണ് നാം മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് നാം ചിന്തിക്കുക നമ്മുടെ ജീവിതങ്ങളാണ് നാം ഓരോരുത്തരും നയിക്കുന്നത് അതിൽ നല്ലതും ചീത്തയുമായി നമുക്ക് കാണാനും സാധിക്കണം അത് എന്താണെന്നും ഏതാണെന്നും മനസിലാക്കുക എങ്ങനെ മുന്നോട്ട് പോവുക എന്ന് ചിന്തിക്കുക പത്രങ്ങളിലൂടെ മറ്റുള്ളവരെ സഹായിക്കുക നമ്മുടെ ഭാഷയിലുള്ള മികവിനെ വളര്ത്താന് ഈ പത്രങ്ങള്ക്ക് സഹായകരമാണ് പത്രങ്ങൾ എന്ത് ലഭിക്കുന്നു അതിനെ എന് ശരിയായ രീതിയില് തന്നെ നമ്മളിലേക്ക് ഉള്ക്കൊണ്ടുകൊണ്ട് അതിനെ മുന്നോട്ട് പോകാന് നമുക്ക് സഹായിക്കണം